ഈ നമ്മുടെ പ്രദേശമൊക്കെ കൂടുതലായിട്ട് കാണപ്പെടുന്ന പക്ഷികൾ എന്ന് വെച്ചാൽ ചെറിയ ചെറിയ ഈ റോഡ് അരികിലും അതുപോലേ ചെറിയ കടകളുടെ മേലേ ഒക്കെ കാണാൻ പറ്റുന്നത് കൂടുതൽ പ്രാവുകളാണ് ഒരുപാട് പ്രാവുകളുണ്ടാവും അതുപോലേ വയൽ പ്രദേശം നമ്മൾ വയൽ പ്രദേശത്താണ് താമസിക്കുന്നത് അവിടെ തന്നെ ഒരുപാട് കൊക്കുകൾ പ്രാവുകൾ കാക്ക കൂടുതലായിട്ടും കാക്കേനേ ആണ് കാണുന്നത് പിന്നെ അതുപോലേ മൈനേനെ ഒക്കെ കാണാറുണ്ട് തത്തേനേ ഒക്കെ എപ്പോഴെങ്കിലുമാണ് കാണാറുള്ളു ഈ വാഴയിലൊക്കെ കൂമ്പോക്കെ ഉണ്ടാവുമ്പോൾ അവിടെ വന്ന് നിൽക്കുന്നത് തത്ത് അല്ലെങ്കിൽ വാഴപ്പഴം ഒക്കെ പഴുക്കുമ്പോഴൊക്കെ അതിൽ കൊത്തി തിന്നാൻ വരുന്നത് കാണാം അതുപോലേ വാലാട്ടിക്കിളീന്ന് പറയുന്ന ഒരു കിളിയുണ്ട് അതുപോലേ ഇരട്ടതലച്ചീന്ന് പറയുന്ന ഒരു പക്ഷി അതിനെയൊക്കെ എപ്പോഴും കാണാം പിന്നെ അതുപോലേ അരി അരിപ്രാവില്ലേ അതിനെ ഒക്കെ ഇടയ്ക്കൊക്കെ രാവിലെ നേരം രാവിലെ പുലരുമ്പോൾ തന്നെ വീട്ട് മുറ്റത്തൊക്കെ കാണാം അതുപോലെ ചെറിയ ചെറിയ ചെറിയ കളർ മാറ്റം ഒരു നീല മഞ്ഞ അങ്ങനത്തെ കളറൊക്കെയുള്ള പക്ഷികളെ കാണാം പിന്നെ അതുപോലെ മരംകൊത്തീനെ കാണാം മരംകൊത്തിയേ എൻ്റെ വീട്ടിൻ്റെ തൊട്ട് മുന്നിലൊരു തെങ്ങുണ്ട് ഒരു മേലെ വെറൊരു ഒരു മരം പോലെ തേങ്ങിൻ്റെ മേലേ ഒന്നുമില്ല അപ്പോൾ അവിടെ ഇങ്ങനെ കൊത്തി കൊത്തി ഇതാകുന്നത് കാണാം കാണാം പിന്നെ അതുപോലെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നിരീക്ഷിക്കുന്നതെന്നു പറഞ്ഞാൽ തത്തേനെ തന്നെയാണ് തത്തേനെ ഭംഗി നല്ല ചുവന്ന കൊക്കും പച്ച കളറുമൊക്കെ കാണുമ്പം തത്തേനെ പെട്ടന്ന് തന്നെ ഒരു പച്ച കളറ് കാണുമ്പം നമുക്കൊരു പെട്ടന്ന് ഒരു ആകർഷണം ഉണ്ടാകുലോ തത്തേനെ കാണുമ്പോൾ